മതത്തെക്കുറിച്ച് സണ്ടേ സ്കൂൾ കുഞ്ഞുനാൾതൊട്ടുപഠിച്ച് വിശ്വാസപരിശീലനംനേടി പരസ്പരസ്നേഹ സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും വളരാൻ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് കുടുംബത്തെ സ്നേഹത്തിൽ സംരക്ഷിക്കാനും കുടുംബത്തിനെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുവാനും സാധികുന്ന് സാധിക്കുന്നുണ്ട് സമൂഹത്തെ സ്നേഹ് സ്നേഹിക്കുവാനും സമൂഹത്തോട് സ്നേഹമായി ഇടപെടാനും സാധിക്കുന്നുണ്ട് സഭയില് സഭയോടൊത്ത് ചേർന്നു നിന്നുകൊണ്ട് സഭാ സമൂഹത്തോട് സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരിയൊത്തിരി നന്മ ചെയത് മുന്നേറുവാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ലോകമെമ്പാടുമുള്ള ആത്മ ആൾ ആളുകളോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും മുന് കാണിച്ച് മുന്നേറുവാൻ സഹായിക്കുന്നുണ്ട് സഭയില് മതത്തോട് ഒത്തുചേർന്നുകൊണ്ട് ഉണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും അത് നന്മയിലൂടെ നയിക്കുവാൻ സഹായിക്കുന്നുണ്ട് കുടുംബത്തെതന്നെ ഭദ്രമായി കാത്തുസൂക്ഷിക്കുവാനും മക്കളുടെ നല്ല ഒരു സ്വഭാവത്തിലും നല്ല വളർച്ചയ്ക്കും ഒത്തൊരുമയോടുള്ള സ്നേഹത്തിലും വളർത്തുവാൻ സഹായിക്കുന്നുണ്ട് ഇനി നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നമ്മുടെ സഹോദരങ്ങള് അയൽവക്കക്കാരേയും സ്നേഹിതരേയും എല്ലാം ഒരുപോലെ സ സ്നേഹിക്കുവാനും സംരക്ഷണം നമ്മളിൽ നിന്ന് വേണ്ടുന്ന സമയത്ത് അവരോട് അവർക്ക് സംരക്ഷണം നൽകുവാനും സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു തീക്ഷ്ണത നമ്മളിൽ നിലനിർത്തി കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കള്ളവും ചതിവും ഒന്നുമില്ലാത്തൊരു ജീവിതം നയിക്കാൻ വളരെ സഹായിക്കുന്നുണ്ട് ഓരോ നിമിഷവും നമ്മുടെ വിശ്വാസത്തെ വ്യതിചലിച്ചുപോകുവാൻ സാധിക്കുന്നില്ല അത് അടിത്തറ പാകുന്ന ഒരു വിശ്വാസമാണ് നമ്മുടേത് സൺഡേസ് ക്ലാസിലെന്നും നമുക്കു കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മത അധികാരികളിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികരിലൂടെ സന്യസ്തരിലൂടെയെല്ലാം ഞങ്ങൾക്ക് നല്ല ഒരു വിശ്വാസം അടിസ്ഥാനം ആയി കിട്ടിയിട്ടുണ്ട് ആ വിശ്വാസം ഞങ്ങൾക്ക് മറ്റുള്ളവരിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒത്തിരിയൊത്തിരി സംരക്ഷിച്ച് പോകുവാനായിട്ട് ഇടായാകുന്നുണ്ട് അതു വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണ് ഞാനതു കാണുന്നത് നമ്മുടെ കുടുംബങ്ങളെ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും സംരക്ഷിച്ച് പോകുന്നു സ്വകുടുംബം മാത്രമല്ല മറ്റ് സമുദായക്കാരെയും മറ്റു സ്നേഹിതരെയും നമ്മൾ എവിടെ ഒരുമിച്ചു കൂടുന്നോ അവിടെ കൂടുന്നവരെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നല്ലൊരു മനസ്സും ഒരു നല്ലൊരു ധൈര്യവും നല്ലൊരു വിശുദ്ധിയും നമുക്ക് ഉണ്ട് ആ ഒരു വലിയ ഒരു ഉത്തമ ബോധ്യം കിട്ടിയിട്ടുണ്ട് അതുതന്നെ ഞങ്ങള് തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമുക്കിനിയും അത് തുടർന്നു പോകുവാൻ ഞങ്ങളുടെ നല്ലവനായ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹം അരുളട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതിലധികം നന്മകൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നൂ ഞങ്ങൾ ഈ കാണുന്നവരെയും ഞങ്ങളുടെ കൂടെ ഉള്ളവരെയും ഞങ്ങൾ സ്നേഹിതരായി കാണുന്നവരെയും കൂട്ടുകൂടുന്നവരെയും എല്ലാം വിശുദ്ധിയിലും സ്നേഹത്തിലും ഈശോയുടെ സ്നേഹത്തിലും സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളാ ഞങ്ങടെ തമ്പുരാനനുവദിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നേറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നന്മത നന്മകളാൽ മുന്നേറുവാൻ തന്നെ ഞങ്ങൾക്കിടയാകട്ടെയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു